ഞാൻ വായിച്ച ബൈബിൾ ബൈബിളിൽ നിന്ന് സങ്കീർത്തനത്തിൽ കർത്താവിന്റെ സംരക്ഷണം എന്ന അദ്ധ്യായത്തിൽ പറയുന്നു തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ച് കൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കുമെന്ന് ഈ വാ വചന ഭാഗം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അതായത് അവിടുന്ന് വേ വേടന്റെ കെണിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും അതായത് അവിടുന്നെല്ലാ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും കർത്താ സം സന്തോഷം വരുമ്പോൾ ദൈവത്തെ ആശ്രയിക്കാനും സങ്കടം വരുമ്പോളും ദൈവത്തിലാശ്രയിക്കാനും ദൈവം അതിനുള്ള പ്രതിവിധി തരുമെന്നും നമ്മളെ സമാധാനവും സംരക്ഷ സംരക്ഷണവും കൊണ്ട് നിറയ്ക്കുവെന്നും എനിക്ക് വളരെ പ്രത്യാശ തരുന്ന ഒരു ക വാ വചന ഭാഗമാണിത് ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈയിടെ എനിക്ക് ഭയങ്കര ഒരു ഓപ്പറേഷൻ വന്നു അപ്പോഴത്തേക്കും നമുക്ക് മനസിനിങ്ങനെ വളരെ വിഷമം വരുമ്പോഴും എല്ലാം ദൈവത്തിന്റെ ഒരു സംരക്ഷണം എന്ന ഉള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും നമ്മള് മനസ്സ് നിരാശയിലേക്ക് പോകാതെ നമ്മള് പ്രത്യാശയിലേക്ക് പിടിച്ച് നിർത്തുന്ന ദൈവത്തിന്റെ വചനം എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടെനിക്ക് അ അത്യധികമായി നിരാശയൊന്നും വരാതെ നമ്മുടെ ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കുകയില്ല അവിടുത്തെ തൂവലുകൾ കൊണ്ടവിടുന്ന് നിന്നെ മറച്ചു കൊള്ളും ചിറകിന്റെ കീഴിൽ നമുക്കഭയം ലഭിക്കുമെന്ന് ഒരു വചനം അതിന് എല്ലാ സങ്കടങ്ങളിൽ നിന്നും എന്നെ പിടിച്ച് നിർത്താനും എനിക്ക് സന്തോഷം തരാനും ഉപകരിക്കുന്നു ഇത് ഞാൻ മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കാനും എന്റെ മക്കൾക്ക് ഉപദേശത്തിലൂടെ പറഞ്ഞ് കൊടുക്കാനും അവർക്ക് ഇതില് എന്തെങ്കിലും സങ്കടങ്ങള് ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിലാശ്രയിച്ച് കൊണ്ട് പിടിച്ച് നിൽക്കാനുള്ള കൃപക്കും സഹനം ആണെങ്കിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ ആ സഹനത്തിലൂടെ കടന്ന് പോയി സന്തോഷത്തോടെ ആ സഹനം സ്വീകരിച്ച് ദൈവ സന്നിധിയിലേക്ക് നമ്മൾ ചെല്ലേണ്ടവരാണ് എന്നുള്ള ഒരു പ്രത്യാശ ഉണ്ടാകാനും എനിക്ക് സഹായിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ അചഞ്ചലമായൊരു സംരക്ഷണമാണ് ഇതിൽ നമ്മൾ കാണുന്നത് മാനസികമായി നമ്മളെ ഒത്തിരി അത് മാനസികമായി നമുക്ക് ഒരു വിടുതൽ തരും അതായത് നമ്മുടെ നിരാശയിൽ നിന്ന് നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്നൊരു വചനമാണ് ഏവർക്കും ഈ ഒരു വചനം ഉപദേശിച്ച് കൊടുക്കുവാനും ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്